എനിക്ക് അങ്ങനെ ലോണെടുക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം എന്താണെന്നുവെച്ചു കഴിഞ്ഞാൽ ഞാൻ കൂടുതലായിട്ടും ലോണെടുത്തിട്ടുള്ളത് കൃഷിക്കാണ് കൃഷിക്കാണ് ഞാൻ കൂടുതൽ ലോണെടുത്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീട്ടിൽനിന്ന് അച്ഛൻ്റെ സ്ഥലത്തിൻ്റെ ഇതിൽ വെച്ചിട്ടാണ് ഞാൻ കാർഷിക വായ്പയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് കാർഷിക വായ്പ എടുക്കുന്നത് എങ്ങനെയാണെന്നു വെച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ടും എന്താപറയുക നമുക്ക് സ്ഥലം ഉള്ളതിനനുസരിച്ചാണ് നമുക്ക് കാർഷിക വായ്പയും കാര്യങ്ങളൊക്കെ കിട്ടുക ഇപ്പം ഞാനെൻ്റെ ഇതിൽ വെച്ചിരിക്കുന്നതെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരേക്കർ സ്ഥലത്തിൻ്റെ ഇതിലാണ് ഞാൻ വായ്പ് എടുത്തിരിക്കുന്നത് അതൊരു ഒന്നേയറുപത്തഞ്ച് പിന്നെ നമ്മൾ സ്വർണ്ണവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ അടയ്ക്കേണ്ട ഒരു സ്ഥിതി സ്ഥിതിയുണ്ട് അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കെ സി സി ലോണും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ ഇപ്പോൾ കാർഷിക വായ്പക്ക് പറയുന്നതാണ് കെ സി സി ലോൺ എന്ന് അത് നമുക്ക് നാല് ശതമാനം പലിശക്കാണ് അവർ തരുന്നത് അപ്പോൾ അത് നമ്മൾ ഒരു വർഷത്തിൽ ഒരു ലക്ഷം ആണെങ്കിൽ നമ്മൾ എടുക്കുന്നതിന് അതിനനുസരിച്ച് നമ്മൾ അടയ്ക്കണം അങ്ങനെയാണ് കയ് ഇതു വരുന്നത് പക്ഷേ നമുക്കാവശ്യമുള്ള സമയത്ത് നമുക്ക് വേണമെങ്കിൽ അത് അടച്ചു തീർക്കുകയും ചെയ്യാം നമുക്ക് സ്വർണ്ണമാണെങ്കിൽ നമ്മൾ ഇതിൽ വേറെ വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ അവിടുന്നൊരു ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക പിന്നെ ബേങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ബേങ്ക് അക്കൗണ്ട് നമ്മൾ എടുക്കണം അത് നമുക്ക് കിട്ടുന്നത് പഞ്ചാബ് നാഷണൽ ബേങ്കിൽനിന്നാണ് എടുക്കുന്നത്